ആ പറയൂ ആ അതെ ആ ഇന്ന് നമുക്ക് എട്ടടവുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ ഉള്ളത് ഇന്നലെ അടവുകൾ പഠിച്ചു ഇനി നമുക്ക് തട്ടടവാണ് ഇന്ന് പഠിക്കാനുള്ളത് അതിൻ്റെ പ്രത്യേകത അരമണ്ഡലത്തിൽ ഇരുന്ന് കാൽ ഉയർത്തി അമർത്തി ചവിട്ടണം കൈകൾ നേരെ പിടിക്കണം ഷോൾഡറിനുനേരെ പിടിച്ചിട്ട് പിടിച്ച് വേണം നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആ ഇന്ന് ഇന്നലത്തെ ബാക്കി പഠിക്കണം നമുക്ക് ഏഴ് സ്വരങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ ഉള്ളത് അതിൻ്റെ രണ്ട് സ്വരങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു ബാക്കി ഉള്ള ഇത് നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചെടുക്കണം അതിന് ഇന്ന് നമുക്ക് ഓരോ സ്വരം നമുക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ആ ആ അത് നമുക്ക് ആദ്യം നമുക്ക് പഠിക്കുക സപ്തസ്വരങ്ങളാണ് നമുക്ക് ആകെ ഉള്ളത് അതിൽ ആദ്യത്തെ രാഗം നമ്മൾ നമുക്ക് ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കണം അതിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു പുതിയ അധ്യാപകൻ നമുക്ക് വരും ഇപ്പോൾ ഇതുവരെ ഒരു അഞ്ച് രാഗം ഞാനല്ലേ പഠിപ്പിച്ചത് ഇനി ബാക്കി പഠിപ്പി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു അധ്യാപകൻ വരുന്നുണ്ട് ആ ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ലൈറ്റ് ലൈറ്റ് മ്യൂസിക് വേണമെങ്കിൽ ലളിതഗാനം വേണമെങ്കിൽ നമുക്ക് പഠിക്കാം അതിന് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അത് മാത്രമല്ല പിന്നെ നമ്മുടെ പരിപാടി വരാൻ പോവുന്നുണ്ട് ആ പരിപാടിക്ക് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് നൃത്തരൂപങ്ങൾ നമുക്ക് വേറെ പഠിക്കാനുണ്ട് അത് ചിത്തിരയാണെങ്കിൽ നമുക്ക് നിങ്ങൾ പാട്ട് പഠിച്ച് തുടങ്ങിയല്ലോ നമുക്ക് വേണമെങ്കിൽ അരങ്ങേറ്റം വേണമെങ്കിൽ അരങ്ങേറ്റത്തിനായിട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അരങ്ങേറ്റം ഒക്കെ ചെയ്യാം